നാട്ടും പ്രദേശത്ത് ഒരുപാട് വ്യവസായങ്ങളുണ്ട് അതിപ്പോൾ കൃഷിയാണ് കൂടുതലും വ്യവസായ കൃഷിയാണ് കൂടുതലും ചെയ്യാറുള്ളത് എല്ലാവരും എല്ലാവർക്കും കൃഷിയുണ്ട് പാടങ്ങളുണ്ട് അപ്പോൾ നെൽകൃഷിയാണ് കൂടുതലും നെൽകൃഷി അതേപോലെ പിന്നെ വാഴകൃഷി ഇത് രണ്ടുമാണ് കൂടുതലായിട്ടും കണ്ടു വരാറുള്ളത് പിന്നെ കമ്പനികളും ഉണ്ട് ഒരുപാട് വ്യവസായങ്ങള് കമ്പനികളായിട്ടുമുണ്ട് കമ്പനികളെന്ന് പറയുമ്പോൾ സോപ്പിന്റെ സോപ്പ് സോപ്പുപൊടി ഇങ്ങനെയുള്ളതും അതേപോലെ ഇരുമ്പിന്റെ കമ്പനികള് ഇരുമ്പ് നിർമ്മാണത്തിന്റെ അതേപോലുള്ള കമ്പനികള് അതേപോലെ ബ്രഡ് കേക്ക് കേക്കൊക്കെ ഉണ്ടാക്കണ കമ്പനികള് ഇതൊക്കെ തന്നെ ഈ പ്രദേശത്ത് ഒരുപാടുണ്ട് അതൊക്കെ ഒരുപാട് പേർക്ക് ജോലി കിട്ടുന്നതായിട്ടുള്ള കമ്പനികളും അതേപോലെ ഇപ്പോൾ കൃഷി ആണെങ്കിലും എല്ലാം വളരെ സജീവമായിട്ടുതന്നെ ഈ നമ്മുടെ ഗ്രാമത്തിലൊക്കെ കണ്ടുവരുന്ന ഒന്നാണ് കൃഷിയാണ് മെയിനായിട്ട് അതിപ്പോൾ അതേപോലെ ഫാമ് പശു വളർത്തല് കോഴി വളർത്തൽ അതുപോലുള്ള ആട് അങ്ങനെയുള്ള ഫാമ് താറാവ് ഇങ്ങനെയുള്ളതൊക്കെ കണ്ട് വരാറുണ്ട് ഗ്രാമത്തിലൊക്കെ എല്ലാ വീട്ടിലും കോഴികള്ണ്ടാവാറുണ്ട് അതേപോലെ പശുവും ഒന്നെടവെട്ട്ള്ള വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ട് പിന്നെ കോഴി പിന്നെ ആട് ഇതൊക്കെ നമ്മുടെ ഗ്രാമത്തിൽന്നു ഗ്രാമപ്രദേശങ്ങളിലുള്ള വീടുകളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു വ്യവസായ രീതി കൂടിയാണ്